ആ ഓക്കെ ഞാനൊരു കാര്യം എൻക്വയർ ചെയ്യുന്നത് ചെയ്യാൻ വേണ്ടീട്ടാണ് വിളിച്ചത് ജൂണിലൊരു ഒരു മാര്യേജിൻ്റെ ഒരു ഇവൻറ്റ് വരുന്നുണ്ട് എൻ്റെ ഒരു ഫ്രണ്ടിൻ്റെ അപ്പം അതിനു നമുക്ക് കുറച്ചു വോളണ്ടിയഴ്സിനെ ആവശ്യമുണ്ടായിരുന്നു നമുക്ക് ഗസ്റ്റിനെ റിസീവ് ചെയ്യാനും പിന്നെ ഫുഡ് പ്രൊവൈഡ് ചെയ്യുന്ന സ്ഥലത്തും നമുക്ക് കുറച്ചു വോളണ്ടിയർസ് വേണമായിരുന്നു പിന്നെ സ്റ്റേജ് ഡെക്കറേഷനും കാര്യങ്ങളൊക്കെയുണ്ട് അപ്പം അതിനെപ്പറ്റി എനിക്കൊന്നു അറിയണായിരുന്നു ആ ഇതൊരു ആ ഇതൊരു ക്രിസ്ത്യൻ വെഡിങ്ങാണ് അപ്പം ജൂണിലാണിത് നടത്താനുദ്ദേശിക്കുന്നത് ഡേറ്റ് നമ്മൾ പിന്നീടറിയിക്കാം അപ്പം അതിനു നമ്മളൊരു ഫ്ലോറൽ തീമിലാണ് ഫ്ലവർസൊക്കെ വെച്ചിട്ടുള്ളൊരു സ്റ്റേജ് ഡെക്കറേഷനാണ് നമ്മളുദ്ദേശിക്കുന്നത് പിന്നെ നിങ്ങളുടെ ഐഡിയാസുണ്ടെങ്കിൽ അത് നിങ്ങൾക്ക് പറയാം അപ്പം അതിൽ നമ്മൾ നല്ലതുനോക്കിയിട്ട് നമുക്ക് സെലക്ട് ചെയ്യാം പിന്നെ നമ്മൾ സ്റ്റേജിൽ ഒരു ഫ്ലോറൽ ഡെക്കറേഷനും പിന്നെ നമ്മൾ നിങ്ങൾ കാറ്ററിംഗ് സർവീസും പ്രൊവൈഡ് ചെയ്യുന്നില്ലേ

പേസ്റ്റൽ ആ ഇപ്പം ഇപ്പോഴത്തെ ഒരു ട്രെൻഡ് പേസ്റ്റലാണലോ അപ്പോൾ നമുക്ക് പേസ്റ്റൽ അതിൻ്റെ ഫ്ലവർസ് വെച്ചിട്ട് ഒരു എന്തായാലും വേണ്ടത് ഫ്ലോറലാണ് പിന്നെ കളേഴ്സിൻ്റെ കാര്യം ഞാൻ പറഞ്ഞില്ലേ എൻ്റെ ഫ്രണ്ടാണ് അപ്പം ഞാൻ അവളുടെ അടുത്തുംകൂടി ഒന്നു ചോദിച്ചിട്ട് കൺഫേം ചെയ്തിട്ട് പറയാം പിന്നെ നമുക്ക് പിന്നെ നമ്മൾ കേക്ക് വേണം അപ്പോൾ കേക്കുദ്ദേശിക്കുന്നത് ഒരു ത്രീ ടയർ കേക്കാണുദ്ദേശിക്കുന്നത് അപ്പോൾ അതൊക്കെ പ്രൊവൈഡ് ചെയ്യാൻ പറ്റില്ലേ അതിൻ്റെ കളറും ഫ്ലേവറും ഞാൻ കൺഫേം ചെയ്തിട്ട് പറയാം അപ്പോൾ ഇതൊക്കെ ഇതിൻ്റെ ഡീറ്റെയിൽസ് ഒക്കെ മീൻസ് നിങ്ങൾ പ്രൊവൈഡ് ചെയ്യുന്നുണ്ടോന്നറിയാൻ വേണ്ടീട്ട് കോൺടാക്ട് ചെയ്തതാണ് ആ അപ്പോൾ എനിക്ക് തോന്നുന്നു എൻ്റെ ഫ്രണ്ട് നേരത്തെ പറഞ്ഞതുവെച്ച് അവൾ രണ്ട് വിഡിയോഗ്രാഫർസും പിന്നെ ഫോട്ടോഗ്രാഫിക്ക് എനിക്ക് തോന്നുന്നു ഒരാൾ മതിയായിരിക്കും പിന്നെ അവളൊരു ഫോട്ടോ ബൂത്തിൻ്റെ കാര്യംകൂടി പറയുന്നുണ്ടായിരുന്നു അതായത് വെഡിങ്ങിന് ഫോട്ടോ എടുത്തിട്ട് അപ്പൊത്തന്നെ ഫോട്ടോ പ്രിൻറ്റ് ചെയ്ത് കൊടുക്കുന്നൊരു ഐഡിയ അവൾ പറയുന്നുണ്ടായിരുന്നു അത് അതവൈലബിളാണോ ആ ഓക്കെ ആ പിന്നെ നമ്മൾ സ്റ്റേജ് ഡെക്കറേഷൻ മാത്രമല്ല ആ ഒരു ഹാൾ മൊത്തത്തിൽ ഡെക്കറേഷൻ വേണം എൻട്രൻസ് കുറച്ചൊരു എന്താപറയാ ഒരു ആർക്കാണ് ഉദ്ദേശിക്കുന്നത് അതും അവിടേം ഫ്ലോറൽ ഒരു ഡിസൈനാണു അവൾ പറഞ്ഞത് അപ്പം ആ ആ ഓക്കെ ഓക്കെ താങ്ക് യൂ